എൻ്റെ സെക്കൻഡ് പ്രോഡക്റ്റ് ഏതാണ് ചോദിച്ചിട്ടുണ്ടെങ്കില് മൊബൈൽ ഫോണാണ് അപ്പം ഞാന് മേടിച്ചു തന്നെ അതായത് എന്റേൽ സാധാ ഒരു ചെറിയ ഫോണാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ മേടിച്ചത് എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ ഒരു സെക്കന്റ് ഫോണാണ് ഒരുആറായിരം രൂപൻ്റെ ഫോണാണ് മേടിച്ചത് അപ്പം ആദ്യത്തെ ഒരു രണ്ടാഴ്ചയൊക്കെ നല്ല യുസേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പം എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ പിന്നത് ഞാനതായത് ഫോട്ടോസും കാര്യങ്ങളും കുറച്ചു കുറച്ചു ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ കേറ്റിയതെ ഉള്ളു അപ്പത്തേക്കും ഇത് ഫുള്ള് ഹാങ്ങായി പിന്നെ വർക്ക് ചെയ്യാൻ പറ്റാണ്ടായി അപ്പം നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ ഫോൺ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം തന്നെ പിന്നെ കോളൊക്കെ പോകും അങ്ങാനത്തെ ഒരു അവസ്ഥയായി ആപ്പോന്നു വച്ചിട്ടുണ്ടങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നി പിന്നെന്ന് വെച്ചിട്ടുണ്ടങ്കിൽ ഹാങ്ങ്ന്ന് പറഞ്ഞിട്ടുണ്ടങ്കിൽ നമുക്ക് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും നമുക്ക് കോൾ ചെയ്യാൻ പറ്റില്ല അപ്പം അതായത് കോൾ ചെയ്തിട്ടുണ്ടങ്കിൽ അതായത് എന്തെങ്കിലും അർജന്റ് കോളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പാറ്റില്ല അപ്പം ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു ഹാങ്ങാണ് പിന്നെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ചാർജറിലൊക്കെ കുത്തി വെച്ചിട്ടുണ്ടങ്കിൽ ഭയങ്കര ഹീറ്റ് ആവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഫോണിന് ഉണ്ടായിരുന്നു